എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ആകർഷിച്ച ഒരു നക്ഷത്രം എന്നു പറയുന്നത് എന്തുകൊണ്ടും സൂര്യൻ തന്നെയാണ് കാരണം സൂര്യൻ്റെ ഊർജ്ജമാണ് സകല ജീവജാലങ്ങൾടെയും നിലനിൽപ്പിൻ്റെ ആധാരം എന്ന് പറയുന്നത് അപ്പോൾ ഒരു നക്ഷത്രത്തെ തെരഞ്ഞെടുക്കാൻ ഇത്രയും വലിയ പ്രപഞ്ചത്തിലെ ഇനി വേറെ പ്രപഞ്ചത്തിലെ വേറെ കോടാനുകോടി സൂര്യന്മാരുണ്ട് എന്നൊക്കെയാണ് ശാസ്ത്രം പറയുന്നത് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽഎന്നോട് ഒരു നക്ഷത്രത്തെ തെരഞ്ഞെടുക്കാൻ എന്നു വെച്ചുകഴിഞ്ഞാൽ എന്തുകൊണ്ടും നമ്മൾടെ സോളാർ സിസ്റ്റത്തിലുള്ള സൂര്യനെ ആയിരിക്കും ചൂസ് ചെയ്യുന്നത് കാരണം ഭൂമി ഉൾപ്പെടെ ഭൂമിയിൽ ഭൂമിയിൽ മാത്രമേ ഇതുവരെ ജീവൻ കണ്ടെത്തിയിട്ടുള്ളു ഇനി ഒരു പക്ഷേ ഉണ്ടാവാം കാരണം ഈ പ്രപഞ്ചം അത്രയും വലുതാണല്ലോ വേറെ എവിടെയെങ്കിലും ജീവൻ്റെ അംശങ്ങളോക്കെ ഉണ്ടാകാം ഈ ഭൂമിയിൽ സകല ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് ആധാരം ആധാരം എന്നുപറയുന്നത് തന്നെ സൂര്യൻ്റെ പ്രകാശവും അതിൻ്റന്നെ ഊർജ്ജവും തന്നെയാണ് കാരണം സൂര്യൻ ഇല്ലെങ്കിൽ ഭൂമിയിൽ ജീവൻ നിലനിൽക്കുക ജീവൻ്റെ അംശം അതൊരിക്കലും സാധ്യമായ കാര്യമല്ല അതുകൊണ്ടു തന്നെ ഒരു നക്ഷത്രത്തെ തെരഞ്ഞെടുക്കാൻ എന്നോട് പറയുകയാണെങ്കിൽ ഞാൻ എന്തായാലും സൂര്യനെ തെരഞ്ഞെടുക്കും കാരണം കാരണം എന്തിനും നിത്യജീവിതത്തിൽ സൂര്യൻ്റെ ഊർജ്ജം നമുക്ക് ഉണർവേകുന്നു മാത്രമല്ല ഒരു പോസിറ്റീവ് എനർജി കൂടെ നൽകുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് അതുകൊണ്ട് സൂര്യനെയാണ് ഞാനെന്തുകൊണ്ടും തെരഞ്ഞെടുക്കുക